പതിനാറ് ഒമ്പത് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി നാല് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാറ്